അതെ ഇത് സിതാര ടൈലർ ഷോപ്പ് ആണ് ആണോ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉള്ളപ്പോഴായിരിക്കും താങ്കൾ വന്നത് അതെ അതെ ഒരു മണി പന്ത്രണ്ടര ടു ഒന്നര വരെയാണ് എന്നാൽ അതായിരിക്കും കാണാത്തത്

ആ ആ ഓക്കെ എന്താണ് ഡ്രസ്സ് എന്താണ് കോടാണോ ആ ആ ഓക്കെ അതിൻ്റെ മോഡലൊക്കെ എങ്ങനെയാണ് അപ്പോൾ വരിക ഓക്കെ ഓക്കെ ഒരു ജോഡിയല്ലേ ഉള്ളൂ അപ്പം അളവെടുക്കാൻ ഇങ്ങോട്ട് വരുമോ അതോ ആണോ ആണോ എന്നാലൊന്ന് അളവെടുക്കണം ഇപ്പം നീ വലുതായിട്ട് ഉണ്ടാവുമല്ലോ ആണോ അതെ ഓക്കെ എന്നാൽ ഞാൻ നോക്കാം ചിലപ്പോഴേ അത് കിട്ടാൻ ചാൻസ് ഉള്ളു കാരണം കുറേ പേരുടെ എഴുതി വയ്ക്കുന്നതുകൊണ്ട് ഓക്കെ ഓക്കെ ആ ഞാൻ നോക്കാം ഒന്ന് നോക്കിയിട്ട് പറയാം

കഴിഞ്ഞ ഏത് ദിവസമാണെന്നൊന്ന് പറയുമോ ആ അതെ തിങ്കളാഴ്ച അല്ലേ ആ ഉണ്ട് അതിൽ പാൻ്റിൻ്റെ അളവില്ല അത് ഷർട്ട് മാത്രം തൈക്കാനല്ലേ തന്നെ ഷർട്ടിൻ്റെ എന്നാലൊന്ന് നിങ്ങൾ വരുന്നത് നല്ലതായിരിക്കും ചിലപ്പം

ആണോ എന്നാൽ ഞാനെൻ്റെ ഒരു ഊഹം വച്ച് അങ്ങ് തയ്ക്കാം

ആ ഓക്കെ ഓക്കെ രാത്രിയോ അത് എനിക്കിന്ന് കുറച്ച് തയ്ക്കാനുണ്ട് അപ്പം ഞാൻ നാളെ അതിനിരിക്കൂ ഓഹ് അതൊക്കെ കിട്ടും വെളുപ്പിന് ഒരു പത്ത് മണി ആവുമ്പോൾ വരുമോ ആ ആ ഓക്കെ എന്നാ ഞാൻ എൻ്റെ പരമാവധി നോക്കാം ആ ഓക്കെ ഓക്കെ